നമ്മളെ പ്രദേശത്ത് അടുത്ത് അടുത്താ ആയിട്ട് ഗവൺമെൻ്റ് സ്കൂളുകളാണ് കൂടുതലായിട്ട് ഉള്ളത് പക്ഷേ അവിടെ കുട്ടികളെ വിടാത്തതിനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം എന്നുവച്ചാൽ നല്ല കെട്ടിടങ്ങൾ ഇല്ല ഇപ്പോഴും ഓടിട്ട കെട്ടിടങ്ങളാണ് പല സ്കൂളുകളിൽ സ്കൂളുകളിലും ഉള്ളത് അപ്പം തന്നെ രക്ഷിതാക്കൾക്ക് അവിടെ വിടാനും ഒരു അടച്ചുറപ്പുള്ള ഒരു കെട്ടിടം ഇല്ലാത്തത് കൊണ്ട് രക്ഷിതാക്കൾക്ക് കുട്ടികളെ അവിടെ വിടാൻ ഒരു മനസ്സു കൊണ്ട് ഒരു തൃപ്തിക്കുറവ് ഉണ്ടാവുന്നതാണ് പിന്നെ ഉള്ളത് ജീവനക്കാർ ചെറിയ എൽ കെ ജി യു കെ ജി പോലത്തെ കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ജീവനക്കാർ അധ്യാപകർ ഉണ്ടെങ്കിൽ കൂടിയും ഒരു ആയ പോലത്തെ ജീവനക്കാരില്ലാത്തത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ചെറിയ ചെറിയ കുട്ടികളാകുമ്പോൾ ഫുഡ് ഭക്ഷണം കൊടുക്കാൻ ആണെങ്കിലും അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് വിടാൻ ആണെങ്കിലുമൊക്കെ ഒരു ആയയുടെ സഹായം ഇല്ലാത്തത് ഒരു നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഭക്ഷണ കാര്യത്തിൽ ആണെങ്കിൽ ഉച്ച ഭക്ഷണം ഉണ്ടെങ്കിൽ കൂടിയും എപ്പോഴും ചോറും ചെറുപയർ കറിയും അങ്ങനെയൊക്കെയാണ് ഉള്ളത് അത് ഒരു സമ്പൂർണ്ണ ഒരു വിഭവ സമൃദ്ധമായ ഒരു ചുറ്റുപാടിൽ അല്ല ഇപ്പോൾ ഗവൺമെൻ്റ് സ്കൂൾ നീങ്ങുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂമും ത്രീഡി ക്ലാസ്സ് റൂമും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളരണമെന്നാണ് എല്ലാ പാരൻസും ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ഗവൺമെൻ്റ് സ്കൂളിനെക്കാട്ടും പ്രൈവറ്റ് സ്കൂള് സജസ്റ്റ് ചെയ്യുന്നത് അവിടെ ഒരു ആയമാർക്ക് ആണെങ്കിലും കുറച്ച് ഒരു പൈസ കൊടുത്താലും കുട്ടികൾക്ക് നല്ല സുരക്ഷിതത്വവും അതിന് ഒത്തൊരു വിദ്യാഭ്യാസ രീതിയും ഉള്ളത് പ്രൈവറ്റ് സ്കൂളിലേക്ക് ആണെന്നാണ് കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നത്